എനിക്ക് തോന്നുന്നു ഇവിടെ പല ഇവിടെ പലതരത്തിലുള്ള മസാജുകൾ ണ്ട് അതുപോലെത്തന്നെ ഈ ധാരയിടുന്നുണ്ട് അത് പോലെ നമുക്ക് വേണമെങ്കിൽ കിഴി കിഴി പിടിക്കാം

അതിപ്പോൾ ഞങ്ങൾക്ക് പത്ത് ദിവസത്തെയുണ്ട് ഇരുപത് ദിവസത്തെയുണ്ട് മുപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഉണ്ട് അത് നിങ്ങളുടെ സൗകര്യം ഇനി എങ്ങനെ തിരിച്ച് എന്ന് പോകണം ആ അപ്പോൾ നിങ്ങൾ അധികം താമസിക്കേണ്ട കാരണം പതിനഞ്ച് ദിവസമെങ്കിലും ഈ കിഴി കുത്തിയും മസാജ് ചെയ്തും ഒക്കെ ചെയ്യുമ്പോൾ അതിനൊരു പതിനഞ്ച് ദിവസമെങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കണം എന്നാലേ ഇതിന് പ്രയോജനം ഉള്ളൂ അത് കുഴപ്പം ഇല്ല അത് കുഴപ്പം ഇല്ല കാരണം അപ്പം അതിൻ്റെയുംകൂടെ നമുക്ക് ചിലപ്പോൾ ഈ നമ്മളുടെ ഈ മസാജിലൂടെയൊക്കെ ചിലപ്പോൾ അതിന് ഫീലിങ്ങ് കിട്ടും കേട്ടോ നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഇവിടെ വന്ന് നിങ്ങൾ ഈ ഈ ട്രീറ്റ്മെൻ്റ് മ്മ് നമ്മൾ ഇത് കോട്ടക്കൽ നിങ്ങൾക്ക് അറിയാമെന്നു വിചാരിക്കുന്നു കാരണം ഇത് കോട്ടക്കൽ എന്ന് പറഞ് സ്ഥലം ഉണ്ടെ ഈ നിങ്ങളൊക്കെ പോയി പട്ടാമ്പിയിൽ ഒക്കെ പോകുന്ന റോഡിലാണ് ഇതിൻ്റെ ആസ്ഥാനേ ആ അവിടെയാണെങ്കി പലതരത്തിലുള്ള മസാജുകള് ഉണ്ട് അവിടെയാണ് ഈ മെഡിസിൻ ഒക്കെ ഉണ്ടാക്കുന്നതും അപ്പം അവരെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മളുടെ എല്ലാ കോട്ടക്കൽ കടകളിലും അതുപോലെത്തന്നെ മസാജ് സെൻ്റെറുകളിലും ഇത് ഫോളോ ചെയ്യുന്നത് അത് നിങ്ങൾ ഒരു കാര്യം ചെയ്യ് കോട്ടയത്തായതുകൊണ്ട് നമുക്ക് കഞ്ഞിക്കുഴിയിൽ കഞ്ഞിക്കുഴിയിൽ അറിയാമല്ലോ ആ സെൻറ്ററീ തന്നെ ആട്ടെ രണ്ടാം നിലയിൽ അപ്പം അവിടെ നമുക്ക് അധികം താമസിക്കാതെ തന്നെ ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട് മ്മ് അവിടെയുണ്ട് മെഡിസിൻ എല്ലാം അവിടെ തരും പിന്നെ നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻ കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് നമുക്ക് സാവകാശം അത് നോക്കിയിട്ട് ഈ ഒരു ട്രീറ്റ്മെൻ്റോടുകൂടെ നമുക്ക് അതിൽ നിന്നും ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ മോചനം കിട്ടുമായിരിക്കും കേട്ടോ ചിലർക്ക് അങ്ങനെ ചെയ്തിട്ട് അത് സുഖപ്പെട്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഉറപ്പ് പറയാൻ ഒക്കില്ലേലും തൈറോയ്ഡിൻ്റെ അല്ലേ എന്നിട്ട് അത് നമുക്ക് മരുന്ന് ഇതിൻ്റെ കൂടെ കഴിച്ചാൽ ഒരു വിരോധവും ഇല്ലേ അരമണിക്കൂറ് മുമ്പോ അല്ലെങ്കിൽ പുറകിലോ കഴിക്കണം എന്നേ ഉള്ളൂ ഞങ്ങൾ തരുന്ന മരുന്നിൻ്റെ അരമണിക്കൂറ് മുമ്പ് അല്ലെങ്കിൽ പുറകെ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അത് ഇഫക്ട് ചെയ്യും കേട്ടല്ലോ